ഞങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ പ്രൊജക്റ്റ് ആണ് കുർബാന സ്വീകരണത്തിന് ഉടുപ്പുകൾ തയ്ക്കുക എന്നുള്ളത് ഞാൻ ഒരു തയ്യൽക്കാരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉടുപ്പുകൾ തയ്ചിട്ടുണ്ട് പക്ഷെ ഈ കുർബാന സ്വീകരണത്തിൻ്റെ ഉടുപ്പുകൾ എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് ആൾക്കാർക്ക് തയ്ച്ചു കൊടുക്കുക എന്നതായിരുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കർത്തവ്യം ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്നത് പോലെ ശ്രമിച്ചു പക്ഷെ തയ്യൽ മെഷീനിൽ വന്ന ഒരു കേടു കാരണം അതിൻ്റെ ഒരു കുറവു കാരണം ഞങ്ങൾ ചെയ്ത തുണികളിലെല്ലാം തുന്നിയപ്പോൾ പ്രശ്നം വന്നു അപ്പം അത് ഭയങ്കര വൃത്തികേടായിരുന്നു കാണാനായിട്ട് അപ്പം ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വിളിച്ചു അവരെ അവിടെ അടുത്ത് പറയാം ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നു ക്ഷമിക്കണം പൈസ തിരിച്ചുതരാം എന്നൊക്കെ പക്ഷെ ഞങ്ങള് കൂട്ടായിട്ട് ഒരുമിച്ചിരുന്നു ആലോചിച്ചിട്ട് ഞങ്ങൾ ആതുന്നലീന്ന് പിശക് വന്ന സ്ഥലങ്ങളിലെല്ലാം അലങ്കാര വസ്തുക്കൾ വച്ച് അത് ഒന്നുകൂടി തയ്ച്ചു എന്നിട്ട് ഞങ്ങൾ അത് പൂർണായിട്ട് കമ്പ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു അവർക്ക് അത് മനസിലാക്കാൻ പോലും പറ്റിയില്ല എവിടെയാണ് തുന്നലിനു പിശക് വന്നത് എന്നത് അവർ പറഞ്ഞു അവർക്ക് ഒരുപാട് ഇഷ്ടമായി കടയിൽ പോയാൽ പോലും ഇത്രയും നല്ല ഉടുപ്പുകൾ കിട്ടത്തില്ലാ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് പഠിച്ച ഒരു പാഠം ഞങ്ങൾക്ക് നമുക്ക് ഒരു തെറ്റ് വന്നാൽ അവിടെക്കൊണ്ടും അവസാനിക്കുന്നില്ല അതിന്ന് പാഠങ്ങൾ ഉൾകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് എപ്പോഴും ഒരു വിജയം മുന്നിലുണ്ട് എന്ന് ഞങ്ങൾക്ക് അതിൽ നിന്നും മനസിലായി ഞങ്ങൾ കൂട്ടായി ഇരുന്ന് പ്രവർത്തിച്ചു ഞങ്ങൾക്ക് എന്ത് തെറ്റാണ് വന്നത് എങ്ങനെ അത് മാറ്റം എന്ന് ഞങ്ങൾ കൂട്ടായിട്ട് ഇരുന്ന് ആലോചിച്ച് അതിന് ഒരു നല്ല പോം വഴി കണ്ടെത്തിയപ്പോൾ ഞങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് അത് പൂർത്തീകരിക്കാനും അങ്ങനെ അത്രയും വലിയ ഒരു ഓർഡറ് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് അത് പൂർത്തിയാക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ തയ്യൽ യൂണിറ്റിന് തന്നെ ഒരു വലിയ മുതൽ കൂട്ടായിരുന്നു അത് അപ്പോൾ ഞങ്ങൾ ആ തോൽവികളിൽ നിന്നൊക്കെ പാടങ്ങൾ പഠിച്ചു ഞങ്ങൾക്ക് കൂടുതൽ നല്ല സാധ്യതകളും നല്ല പുതിയ ഓഡറുകളും ആ ഒരൊറ്റ പ്രോജടിൽ നിന്ന് ന്ന് കിട്ടി